ഒരു ഹൈക്കിനിടെ എനിക്ക് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പോയത് പാല കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ടിലാണ് അപ്പം അവിടുത്തെ ട്രെക്കിങ്ങിന് മുകളിലെത്തിയപ്പോൾ ഒരുപാട് താഴത്തോട്ട് നോക്കുമ്പോൾ ഒരു വലിയ എന്താ അത്ഭുതം പോലെ അങ്ങനെ തോന്നി ആദ്യമായിട്ട് പോയത് കൊണ്ടാവാം എന്തോ അറിയില്ല ഓരോ പിന്നെ ഹൈ ഹൈക്കിൽ ഹൈക്കിനിടയിൽ ഒരുപാട് ക്ഷീണം തോന്നി പക്ഷേ ഒരു പുതിയൊരു എക്സ്പീരിയൻസായിരുന്നു എങ്ങനെ നമുക്ക് ഇത് നേ കയറാം നമുക്ക് പറ്റുമോ നമ്മളെ ഓരോ ഭാഗത്തെത്തുമ്പോൾ ഓരോ സെൽഫികൾ എടുക്കാറുണ്ടായിരുന്നു ആ അപ്പോൾ ആ സെൽഫികളെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മളെ ഓരോ സ്ഥലത്ത് പോയ എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അവ അതുപോലെ പോവാനുള്ള ഒരു ഇൻസ്പിറേഷനും ഒരു താല്പര്യമൊക്കെ തോന്നും സാധ്യത ഉണ്ട്